നീന്താൻ പഠിപ്പിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരെ എന്റെ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഫ്രെണ്ട്സിനെയൊക്കെ നീന്താൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നീന്തലെന്ന് പറയുന്നത് അത് എപ്പോഴാണ് നമ്മളെ സഹായിക്കുകയെന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല നീന്തലെന്ന് പറയുന്നതൊരു ഫുൾ ബോഡി എക്സർസൈസ് കൂടിയാണത് ഓരോ ദിവസം ചെയ്യുന്തോറും അത് നമ്മുടെ ശാരീരിക ബലവും മാനസികമായിട്ടും ഓരോ മനുഷ്യനും ഹെൽത്തിയാവുന്നൊരു പ്രോസസ്സാണ് ഈ നീന്തലെന്ന് പറയുന്നത് നീന്തി നീന്തി പഠിക്കുന്നതിന് മുന്നേ ഒരുപാട് വട്ടം മുങ്ങിപ്പോയിട്ടുണ്ട് മുങ്ങിപ്പോവുന്നതത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് വെള്ളം കുടിക്കേണ്ടിവരും അതുപോലെത്തന്നെ ജീവനാണ് ജീവൻ പോവുമെന്നുള്ള പേടിയുണ്ടാവും നമ്മളത് കിടന്നടിക്കും വെള്ളത്തിൽക്കിടന്ന് അപ്പോൾ ആരെങ്കിലും നീന്തിപ്പഠിപ്പിക്കാൻ സഹായിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ അതത്രയും നല്ലതാണ് നമ്മുടെ ഫ്രെണ്ട്സിനോടൊപ്പമായാലും ആരോടൊപ്പമായാലും ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നീന്തിപ്പടിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നീന്തി മുങ്ങിപ്പോയവരെ ഞാൻ രക്ഷപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് ഇല്ലായെന്ന് പറയുന്നില്ല അത് പണ്ട് കുറച്ച് ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ നാട്ടിൽ കടലിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയ വേവ്സ് കടൽ വരുന്നതുകണ്ട് അവർ പേടിച്ചുവിറച്ച് അവിടെ ഉൾക്കടലിലവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ മുങ്ങിപ്പോവേണ്ട സാഹചര്യം ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചുപേരാണ് ഇവിടുന്ന് നീന്തിപ്പോയി അവരെ അവർക്കൊരു കൈത്താങ്ങ് കൊടുത്ത് അവരെ കരയിലോട്ടു കൊണ്ടുവന്നത് അവർക്കൊരുപാട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഉം അത് നമുക്കറിയാം ഒരാൾ മുങ്ങിപ്പോവുമ്പോഴുള്ള അവസ്ഥ എത്രമാത്രം കഠിനമാണെന്ന് അപ്പോൾ അത് അത്രയും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്